ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തി ഒമ്പത് ഏഴ് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി ഇരുനൂറ്റി എഴുപത്തി ആറ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുനൂറ്റി എൺപത്തി ആറ് ഒമ്പത് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി എഴുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത്